അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പമൊരു കാര്യം പറയാം സ്കൂളിലെ യൂത്ത് ഫെസ്ടിവൽസ് അതായത് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവല് യുവജനോത്സവം കലോത്സവമൊക്കെയില്ലേ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ചാർജസാണ് മേക്കപ്പിന് ഒര് കാശ് ഡ്രസ്സിനൊര് കാശ് അപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന് അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ കുറച്ച് പാരെൻറ്റ്സ് അത് കൊടുക്കാൻ കുട്ടികൾക്ക് നല്ല ചിലപ്പമൊക്കെ നല്ല പ്രാവീണ്യമുള്ള കുട്ടികളായിരിക്കും പക്ഷെ അവർക്ക് എക്സ്പെൻസസ് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് പക്ഷെ അൻ പക്ഷെ ചില മാഷുമ്മാരുണ്ട് നന്നായി പഠിപ്പിക്കയും ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല കാശുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവര്ക്ക് ആ ഇതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുന്നില്ല പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ആദ്യത്തെപ്പോലെ സ്റ്റേജസും അങ്ങനെ വലിയ ഒരു നർത്തകർക്ക് നല്ല എക്സ്പെൻസാണ് അപ്പം അവർക്ക് അതിൻ്റെതായ ഇത് കൊടുക്കുന്നില്ല ആരും സഹായങ്ങള് കൊടുക്കുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽസും അതിലൊക്കെയുള്ള കാരണമെന്ന് കൊണ്ട് ഇപ്പോൾ കുട്ടികള് ചിലപ്പോൾ സെൽഫായിട്ട് തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെയുണ്ട് അപ്പോൾ അതും ഈ നമ്മള് ഇപ്പോൾ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എല്ലാവർക്കും അത് വലിയ വെല്ലുവിളി തന്നെയാണ്